ഹലോ ആര് കെ ഡി ഹോട്ടൽ അല്ലേ ഞാന് നേരത്തെ ഒരു ഓര്ഡര് ചെയ്തായിരുന്നു കുറച്ച് സാധനങ്ങൾ നാലുമണിക്കത്തേ ക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാനിവിടെ ചെക്ക് ചെയ്തപ്പോഴായിരുന്നു പ്ലേറ്റും സ്പൂണും ഒന്നും ഇല്ലെന്ന് കണ്ടത് അപ്പോഴത്തേക്കും നാലുമണിക്കാണ് പരിപാടി ഇനി ഇപ്പോൾ മൂന്നേമുക്കാല് ആയല്ലോ അപ്പം നിങ്ങൾ അതിനുള്ള സാധനങ്ങള് ഇങ്ങോട്ട് തന്നുവിട്ടോ എന്നറിയണം കൊടുത്തുവിട്ടായിരുന്നോ അയ്യോ ഓക്കെ സോറി അപ്പോഴത്തേക്കും നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കില് അതിനുപറ്റിയ സ്പൂണും കുറച്ച് ഡിസ്പോസബിള് പ്ലേറ്റും കൂടെ ഒന്ന് കൊടുത്തുവിടാവോ പത്ത് പതിനഞ്ച് എണ്ണം പോരാ ഞങ്ങളൊരു അമ്പത് പേര്ക്കുള്ള ഫുഡാ നമ്മള് ഓര്ഡർ ചെയ്തത് അപ്പം അമ്പത് എണ്ണം അല്ല കറക്റ്റ് അമ്പത് എണ്ണം പോരാ ഒരു ഒരു പത്തെണ്ണം കൂടെ എക്സ്ട്രാ വെക്കുകയായിരുന്നു നല്ലത് അപ്പോൾ എല്ലാ സാധനങ്ങളും ഇപ്പം സ്പൂണൊക്കെ ആണെങ്കിൽ കറി വിളമ്പാൻ മതി ഞാന് ഓര്ഡർ ചെയ്തത് പൊറോട്ടയും ബീഫ് കറിയും ആയിരുന്നു അപ്പം ബീഫ് കറിയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പകരമായിട്ട് ഓര്ഡർ ചെയ്യുന്നതല്ലേ അപ്പം കുറേ പേരായിരിക്കും വിതരണം ചെയ്യുന്നത് അപ്പം അമ്പത് പേരൊക്കെ ആവുമ്പം കുറച്ച് പേർ സെര്വ് ചെയ്യാന് കാണുമല്ലോ അപ്പം രണ്ട് മൂന്നു സ്പൂണെങ്കിലും കൊടുത്തുവിടണം പിന്നെ പ്ലേറ്റ് അത് സേര്വ് ചെയ്യാനുള്ള പ്ലേറ്റും ഇത് വെച്ചുകൊണ്ട് കൊടുക്കാനുള്ള പ്ലേറ്റും ഒക്കെ ഒന്ന് കൊടുത്തു വിടാനായിട്ട് നിങ്ങളൊന്ന് ചെയ്യണം പിന്നെ അത് എളുപ്പം തന്നെ കൊണ്ടുവരണം ഇപ്പോൾ തന്നെ മൂന്നേമുക്കാല് ആയി സോറി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് അറിയാം എന്നാലും നിങ്ങളതൊന്ന് കൊടുത്തുവിടുവായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു നാലുമണിക്കാണ് പരിപാടി ഫങ്ഷന് അപ്പം അമ്പത് പേര്ക്കുള്ള പ്ലേറ്റും ഗ്ലാസ്സും പിന്നെ സ്പൂണ് രണ്ട് സ്പൂണും പിന്നെ അത് സേർവ് ചെയ്യാനുള്ള പ്ലേറ്റ്സും കൊടുത്തുവിടണേ ഓക്കെ താങ്ക് യു